എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോണെന്ന് പറയാനായിട്ട് കൈയ്യിൽ ആദ്യം ഫോണില്ലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ വീടുകളിൽ ലാൻഡ് ഫോണായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത് ലാൻ നമ്മുടെ ബി എസ് എൻ എലിന്റെ ലാൻഡ് ഫോണ് നമ്മൾ പെർ മന്തിലി നമ്മൾ ബി എസ് എൻ എലിന്റെ ഓഫീസിൽ പോയി ചാർജ് ബില്ല് അടക്കുമല്ലോ അതുപോലെത്തെ ഫോണായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എല്ലാ വീടുകളിലും സർവ്വേ സാധാരണമായിട്ട് നമ്മുടെ അയൽവക്കങ്ങളിൽ ആണെങ്കിൽ പോലും അങ്ങനെ ലാൻഡ് ഫോണായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ലാൻഡ് ഫോണും ഇല്ലായിരുന്നു ആദ്യക്കാലത്ത് എല്ലാ വീടുകളിലും എൻ്റെയൊരു ഞാനൊരു ജനിച്ചൊരു സമയം തൊട്ടാണെന്നുണ്ടേൽ എല്ലാ വീടുകളിലും ഇല്ല അത്യാവശ്യം ചില സാമ്പത്തികമായിട്ട് ഉയർന്ന് നിൽക്കുന്ന വീടുകളിലൊക്കെ ലാൻഡ് ഫോണൊണ്ടായിരുന്നു അതിനു ശേഷം നമ്മുടെ വീടുകളിലും ലാൻഡ് ഫോണായി സാധാരണയായിട്ട് എല്ലാ വീടുകളിലും ലാൻഡ് ഫോണായി അത് ബി എസ് എൻ എലിന്റെ ലാൻഡ് ഫോൺ അത് അതിൻ്റെയൊരു കാലഘട്ടം ഒരു കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നോക്കിയാടെ ഫോണ് ഇറങ്ങി നോക്കിയാടെ ഫോണിൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോണിലോട്ട് മാറി അത് നമുക്ക് യാത്ര ചെയ്യുമ്പം നമുക്ക് കൊണ്ടു നടന്ന് നമ്മൾക്ക് ആൾക്കാരെ വിളിക്കാം അത് കുറച്ചൂടെ നമ്മുടെ നമ്മുടെ ജീവിത സാഹചര്യത്തെ തന്നെ മാറ്റിമറിച്ചൂന്ന് തന്നെ പറയാം ഒത്തിരി അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗുണങ്ങൾ പോലെ തന്നെ അതിൻ്റെ മിസ്സ്യൂസും പല ഭാഗങ്ങളിലായിട്ട് പലർക്കും ദൂഷ്യവശങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചെറിയ ഫോണ് നോക്കിയ ഫോണിൻ്റെ മൊബൈൽ ഫോണിൻ്റെ അത് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടച്ച് ഫോണ് ടച്ച് ഫോണിൽ സ്മാർട്ട് ഫോണിലേക്ക് മാറി സ്മാർട്ട് ഫോണിലാണെങ്കിൽ പോലും ആദ്യം ചെറിയ നോക്കിയാടെ ക്യാമറ സെറ്റ് വന്നു ക്യാമറ സെറ്റ് ഫോണ് കഴിഞ്ഞതിന് ശേഷം ടച്ച് ഫോണിലോട്ട് വന്നു ഇതെല്ലാം കണ്ടു വളർന്ന ഒരു ആളാണ് ഞാൻ നയൻറ്റി ഞാനൊരു നയൻറ്റീ ഫൈവിൽ ജനിച്ച ആളാണ് അതായത് തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ജനിച്ച ഒരാളാണ് ഞാൻ അപ്പം നമ്മുടെ നയൺറ്റി കിഡ്സെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വളർന്നത് കൊണ്ട് തന്നെ നമുക്ക് സാങ്കേതിക വിദ്യ വിദ്യകളുടെ ഒരു ഉന്നതി നമ്മൾ കണ്ടു വളർന്ന ഒരാളാണ് ടെക്നോളജിയുടെ ഒരു വളർച്ച കണ്ടു വളർന്ന തലമുറ ആയതു കൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ആസ്വദിച്ചുമാണ് വളർന്നത് ഓരോ കാലഘട്ടത്തിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും നമ്മുടെ ആശയവിനിമയത്തെ തന്നെ കൂടുതലും ഭംഗി ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒത്തിരി ഒത്തിരിയൊത്തിരി മെച്ചപ്പെടുകയും ഒക്കെ ചെയ്തു ആൾക്കാരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഒക്കെ ഒത്തിരി ഒത്തിരി മാറ്റം കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മുടെ സാങ്കേതിക വിദ്യയ്ക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണാണ് ഷോമിയുടെ സ്മാർട്ട് ഫോണാണ് അത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്കിപ്പം ഈ സ്മാർട്ട് ഫോണുപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ബാങ്കിംഗ് ട്രാൻസാഷനുകൾ ഒത്തിരി ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പം എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കേം ഒക്കെ ചെയ്യാണ് അപ്പം മൊബൈൽ ഫോണെന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാനാകാത്ത ഒരു വസ്തുവായി നമ്മുടെ ജീവിതത്തിൽ മാറിയിരിക്കുകയാണ് അത് സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടാണ് മൊബൈൽ ഫോണിത്രേം നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചത് അത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദൂശ്യ വശങ്ങളും ഉണ്ട് എന്നാൽ പോലും അതിന്റെ ഗുണങ്ങൾ നോക്കുമ്പം ദൂശ്യ വശങ്ങൾ നമുക്കെത്രത്തോളം നമ്മളെ ബാധിക്കുന്നില്ല വേണ്ട വിധത്തിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഏതൊരു കാര്യത്തെയും നല്ല രീതിയിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും എന്നതാണ് എൻ്റെ ഒരു നിലപാട്